ഈ പ്രദേശത്ത് മതപരമായ യാതൊരു വിവാദ വിഷയങ്ങളും ഇന്നേ വരെയും ഉണ്ടായിട്ടില്ല ഇവിടെ മതപരമായിട്ട് പറയുകയാണെങ്കില് ഹിന്ദുക്കളും ക്രിസ്ത്യന്സും മുതിലിം മുസ്ലിംസുമാണുള്ളത് പക്ഷെ മുസ്ലിംസ് വളരെ കുറവായൊരു പ്രദേശമാണ് ഞങ്ങളുടേത് ഹിന്ദുക്കൾ ക്രിസ്ത്യന്സാണ് കൂടുതലായും ഹിന്ദുക്കളെക്കാട്ടിലുമുള്ളത് ഹിന്ദുക്കളും ക്രിസ്ത്യന്സും പരസ്പരം യാ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇതു വരെയായിട്ടും പള്ളിയിലെ എന്തു വിശേഷങ്ങളുണ്ടായാലും ഹിന്ദുക്കളും പങ്കെടുക്കാറുണ്ട് കാണാറുണ്ട് റാസെയൊക്കെ കാണാനൊക്കെ ഹിന്ദുക്കള്സ് ഹിന്ദുക്കളും പോകാറുണ്ട് തിരിച്ച് പാ അമ്പലങ്ങളിലെ എന്തു വിശേഷങ്ങൾ ഉത്സവങ്ങളായാലും എന്തായാലും ഗ്രാമത്തിൽ എന്തു നടന്നാലും ക്രിസ്ത്യന്സും അതിലൊക്കെ പങ്കെടുക്കാറുണ്ട് പ്രധാനപ്പെട്ട കലാരൂപമായ പടയണി വരെയും കാണാന് കൂടുതലും ഹിന്ദുക്കള്ക്കൊപ്പം തന്നെ ക്രിസ്ത്യന്സുമാണ് വരാറുള്ളത് പരസ്പരം നല്ല ഒത്തൊരുമേലാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇതു വരെയും ഒരു പ്രശ്നങ്ങളുമില്ല പിന്നെ ക് ക്രിസ്മസാണെങ്കിൽ പോലും ഹിന്ദുക്കളാണ് ഹിന്ദുക്കൾ ക്രിസ്ത്യന്സിനെക്കാട്ടിലും നല്ല രീതിയിലാണ് ഹിന്ദു ക്രിസ്മസൊക്കെ ആഘോഷിക്കാറുള്ളത് ഞങ്ങൾ സ്റ്റാറൊക്കെ ഡിസംബർ ഒന്നു മുതൽ സ്റ്റാറൊക്കെ ഞങ്ങളിടാറുണ്ട് വ വളരെ നല്ല രീതിയിലാണ് അ ആഘോഷിക്കുന്നത് ക്രിസ്മസാണെങ്കിലും എല്ലാം ഈസ്റ്ററാണെങ്കിലും എല്ലാം നല്ല വളരെ രീതിയിലാണ് ആഘോഷിക്കുന്നത് എന്നാല് ക് കൃ